ഹലോ ആ എനിക്കാണ് ഞാനൊരു സി ബി എസ് സി ജോലി ചെയ്യുകയാണ് അപ്പോഴെനിക്ക് പി എഫ് എനിക്ക് മാസാമാസം സ്ക്കൂളിൽനിന്ന് അടയ്ക്കുന്നുണ്ട് എന്റെ കയ്യിൽ നിന്നും അടയ്ക്കുന്നുണ്ട് അപ്പോഴെനിക്ക് പി എഫിൽനിന്ന് കുറച്ച് പൈസയെടുക്കണമെന്നുണ്ട് എനിക്കത്യാവശ്യം ചില പണയങ്ങൾ ഫീസ്സ് ഇതൊക്കെ അടയ്ക്കാൻ ഉണ്ട് കുട്ടികളുടെ ഫീസ് അപ്പൊഴെനിക്ക് അതിൽനിന്ന് കുറച്ച് പൈസയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ വിഭാഗത്തിലേക്കാണ് എനിക്കുള്ള നമ്പരൊക്കെ അയയ്ക്കേണ്ടത് നമ്മുടെ സ്കൂളിൽനിന്നും ചോദിച്ചാൽ നമുക്ക് യൂ എൻ നമ്പര് കിട്ടത്തില്ലയോ ആ അത് അയച്ച് അപേക്ഷിച്ച് നമുക്ക് എത്ര ദിവസത്തിന് ശേഷം നമുക്ക് പി എഫ്ഫ് കിട്ടുമെന്ന് എന്നെയൊന്ന് അറിയിക്കണേ നമുക്കുള്ള ജീവിതത്തിൽ പി എഫ് നല്ലൊരു കാര്യമാണ് കാരണം നല്ലൊരു നമുക്ക് നമ്മുടെ മാസശമ്പളത്തിൽനിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കൊരത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പി എഫിൽ നിന്നും പിൻവലിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ അത് എനിക്കെങ്ങനെയാണ് അതിൽ നിന്നും അപേക്ഷിക്കേണ്ടത് ഏത് വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്നെനിക്ക് കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ട് യൂ എൻ നമ്പരനുസരിച്ച് എനിക്കതൊന്ന് പറഞ്ഞ് തരണേ